ഇപ്പോൾ വയനാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ എന്താ പറയുക അങ്ങനെ കൂടുതലും വൃദ്ധസദനങ്ങളൊന്നും അധികമൊന്നും ഇല്ല എന്നാലും ചീരാലും എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് വയനാട്ടിൽ ഞാനൊരു വൃദ്ധസദനത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുകയും മക്കള് എന്താ പറയുക അവർക്കൊരു ഭാരമാണെന്ന് കരുതിയിട്ട് മക്കളെ മാ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് പോവുകയും അവരെ ഒക്കെ ഞാൻ എന്താ പറയുക ആ സാ സാന്ത്വനം അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു അതിൻ്റെ പേര് അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ആക്കുകയും അതിനു ശേഷം നമ്മള് എന്താ പറയുക ഒരു ദിവസം മുഴുവനും അവരുടെ കൂടെ സ്പെൻറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവര് ചെന്ന് കഴിയുമ്പോൾ ഇവരുടെ എന്താ പറയുക അവരുടെ ഓരോരുത്തരുടെയും വിഷമവും കാര്യങ്ങളൊക്കെ നമ്മളോട് അവര് സംസാരിക്കുകയുണ്ടായി അപ്പോൾ എന്താ പറയുക അവര് നമ്മളോട് നല്ല രീതിക്ക് തന്നെ സംസാരിക്കും അവരുടെ വിഷമങ്ങളൊക്കെ നമ്മളോട് പങ്കിടുകയും ചെയ്യുമ്പോൾ നമ്മള് എന്താ പറയുക നല്ല രീതിക്ക് തന്നെ അവരോട് എന്താ പറയുക അവരോടു സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് പിന്നെ അവര് പൊതുവേ എന്താ പറയുക ഡോണേഷൻസും കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനും പിന്നെ കൂടുതലും എന്താ പറയുക അങ്ങനെ പൊതുവേ അങ്ങനെ കൂടുതലും ആരോടും അങ്ങനെ ചോദിക്കാതെയുള്ള ഇതാണ് കാരണം ആരോടും അങ്ങനെ കാ ക്യാഷും കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിക്കൊന്നൊന്നും ഇല്ല അതുകൊണ്ടു തന്നെ അവരുടെ വിജ എന്താ പറയുക വിജയം തന്നെ ആയിട്ടാണ് ഞാനത് കാണുന്നത് അവർക്ക് വേണ്ട കാര്യങ്ങള് അവിടെ എത്തിച്ചു കൊടുക്കാനതുകൊണ്ട് ആൾക്കാരും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്